ഹലോ ട്രാവൽ ഏജൻസി അല്ലേ ഞാൻ ഇന്ന് രാവിലെ വരാൻ വേണ്ടീട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആഹ് എനിക്ക് അർജൻറ്റ് ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോവാൻ വേണ്ടിയായിരുന്നു അപ്പം നമ്മളെപ്പോഴും കാണിക്കുന്നതാണ് അപ്പം അവിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒൻപത് മണിയാവുമ്പോൾ ഡോക്ടർ വരും അതിനു മുൻപെ നമ്മളവിടെ എത്തണം അപ്പോൾ അതിനുവേണ്ടിയാണ് നിങ്ങളെ ഇന്നലെ വിളിച്ച് ബുക്ക് ചെയ്ത് എല്ലാ പൈസയൊക്കെ തന്നത് അതായത് പൈസ അഡ്വാൻസ് അല്ല ഞങ്ങൾ മുഴുവനായിട്ട് തരുവാണ് ചെയ്തത് അപ്പം ഇന്ന് രാവിലെ വരാന്നു പറഞ്ഞതാണ് ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് ഞങ്ങള്ക് ഇവിടുന്നു പോന്നിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ എട്ടര ആവുമ്പോൾ എത്തുള്ളു എട്ടരയാകുമ്പോൾ എത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ പെട്ടന്ന് കാണാൻ പറ്റുള്ളൂ കാരണം ഒൻപത് മണിക്കാണ് നമുക്ക് ബുക്കിങ് ടൈമ് തന്നത് അപ്പോൾ നിങ്ങളെ ആ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങളെ വിളിച്ചത് അപ്പോൾ കറക്റ്റ് ടൈം എത്തുലോ ആ ഒരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ വേറൊരു വണ്ടിയും ബുക്ക് ചെയ്യാത്തത് ഇപ്പോൾ നമ്മൾ ഇപ്പം ഏഴര ഏഴേമുക്കാൽ എട്ടുമണിയായി എട്ടുമണിയായിട്ടും അയാളെ ഞനൊരു അയാളെ ഫോൺ നമ്പർ അതായത് അവൻ്റെ ഫോൺ നമ്പർ ഫോൺ എടുത്തുനോക്കിട്ടുണ്ടെങ്കിൽ ഞാനൊരു പത്ത് പതിനഞ്ചു പ്രാവശ്യം ഞാൻ വിളിച്ചു ഇത്രനേരായിട്ടും എടുത്തില്ല ഇനിയിപ്പോൾ ബ്ലോക്കിൽ പെടുവാണെങ്കിൽ ഓക്കേ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് ജസ്റ്റ് കോൾ എടുത്തിട്ട് ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് നിങ്ങൾ വേറേതെങ്കിലും വണ്ടി വിളിച്ചോളു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മളിത് ഒരുപാട് നേരം കാത്ത് നിന്ന് ഇപ്പം വരും ഇപ്പം വരും ഇനിയിപ്പോൾ നിങ്ങൾ നമ്മൾ വിളിച്ച് വിളിക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വിളിച്ച വണ്ടി ഇപ്പോൾ വരുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ വരുക അതൊരു മോശമല്ലേ എന്നുവച്ച് ഞങ്ങൾ വണ്ടി വിളിച്ചുമില്ല ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയായി അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരിക